നമ്മുടെ നാട്ടില് ഉപയോഗിക്കുന്ന ഗതാഗത മാർഗ്ഗം എന്ന് പറയുന്നത് ഓട്ടോ റിക്ഷ അതുപോലെ തന്നെ നമ്മള് നമ്മുടെ സ്വന്തം വണ്ടികള് അങ്ങനെ കാറ് ബൈക്ക് അങ്ങനെ ഒക്കെയാണ് ഗതാഗതത്തിന് ഉപയോഗിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടി വീട്ടിൽ നിന്ന് ടൗണിലേക്ക് പോകണമെങ്കില് നമ്മള് ബൈക്കെടുത്തിട്ട് പോകുന്നു ബൈക്ക് സ്കൂട്ടറെക്കെടുത്തിട്ട് പോകുന്നു നമുക്കെന്താന്നുവച്ചാൽ ഇവിടെ ബസില്ല നമ്മുടെ നമ്മുടെ ഇവിടെ പ്രദേശത്തു ബസില്ല നമുക്ക് ഓട്ടോ റിക്ഷ അതുപോലുള്ള എപ്പോഴും വണ്ടികളൊക്കെ ഉണ്ടാകും പിന്നെ ഏ അതുപോലെ പിന്നെ പറയുവാണെങ്കിൽ ഏ അങ്ങനെ പോകാം അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വേറൊരു അടുത്തുള്ള നാട്ടിലേക്ക് പോകണമെങ്കിൽ ബസ് മാനന്ത നമ്മുടെ മാനന്തവാടിയിൽ ചെന്ന് കഴിഞ്ഞാൽ ബസുണ്ടാകും ബസിനു പോകാം അതല്ലെങ്കില് നമുക്ക് ബൈക്കിന് പോകാം അല്ലെങ്കില് കാറിന് പോകാം അങ്ങനെ ഒക്കെയാണ് പോകുന്നത് നമ്മുടെ നാട്ടില് റയിൽവേയോ വിമാനമോ ഒന്നും ഇല്ല അതുകൊണ്ട് ബസാണ് നമ്മുടെ ആ പ്രദേശത്തെ ഗതാഗത മാർഗം എന്ന് പറയുന്നത്